വരയ്ക്കാൻ തോന്നാത്ത ദിവസങ്ങൾ ഉണ്ടാവാറുണ്ടോന്ന് ചോദിച്ചാൽ ചില ദിവസങ്ങളങ്ങനെ ഉണ്ടാവാറുണ്ട് നമ്മൾ ചിലപ്പോൾ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടാകും എനിക്ക് നാളെ അത് ചിത്രമൊന്ന് വരച്ച് കംപ്ലീറ്റ് ചെയ്യാം ഓൾ റെഡി നമ്മൾ ചെയ്ത് വച്ചിരിക്കുവായിരിക്കും നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം നാളത്തെ ദിവസം അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കുകയായിരിക്കും നമ്മൾ നാളത്തെ രാവിലെ എണീച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ മൂഡേ മാറീട്ടുണ്ടാകും നമുക്ക് അത് ആ ദിവസം ചെയ്യാനേ തോന്നത്തില്ല എന്ത് കൊണ്ടാന്നൊന്നും അറിയില്ല ചിലപ്പോൾ നമ്മുടെ നമ്മുടെ ഫിസിക്കലി നമ്മൾ ഓക്കെ ആയിരിക്കില്ല മെന്റലി നമ്മൾ കുറച്ച് ടയേർഡ് ആയിട്ടിരിക്കുന്ന സമയമായിരിക്കും അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് വീക്കായിട്ട് ഇരിക്കുന്ന സമയം നമുക്ക് എന്ത് തന്നെ മൂഡ് വന്നാലും നമുക്കത് ചെയ്യാൻ തോന്നാറില്ല അങ്ങനെ ഉണ്ടാവാറുണ്ട് ചിലപ്പം നമുക്ക് തോന്നുമായിരിക്കും അത് വരക്കാമെന്ന് പക്ഷെ നമ്മൾ ആ ഒരു പോയിന്റിലേക്ക് എത്തണ സമയത്ത് അതിനുള്ള സാഹചര്യം നമുക്ക് കിട്ടാറില്ല ചിലപ്പം നമുക്ക് ഇപ്പോൾ യൂസ് ചെയ്യുന്ന പെൻസിലിന് എന്തെങ്കിലും കുഴപ്പം വരുക അല്ലെങ്കിൽ പെയിന്റിങ്ങിന് എന്തെങ്കിലും കുഴപ്പം വരുക നമ്മുടെ ഈ കാര്യങ്ങൾ ഇങ്ങനെ നീണ്ട് നീണ്ട് നീണ്ട് പോവാറുണ്ട് മോസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഒരു ഫിസിക്കലി ഞാൻ ടയേർഡ് ആവുന്ന സമയത്തായിരിക്കും എനിക്കിങ്ങനെ വരയ്ക്കാൻ തോന്നാതിരിക്കാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് അത് തന്നെയായിരിക്കും കാരണം പിന്നെ എൻ്റെ പഠിത്തം ഉണ്ടെങ്കിൽ ജോലി അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടെ ഞാൻ കുറെ ഇൻവോൾവ്ഡ് ആവുന്ന സമയത്ത് എനിക്ക് വരയ്ക്കാനധികം സമയം കിട്ടാറില്ല അതൊരു കാരണം തന്നെയാണ് എൻ്റെ ഡെയിലി വർക്ക് ഞാൻ ഇതിലേക്ക് ഡെയിലി വർക്കിനിടയിൽ ഇത് ചെയ്യുകയെന്ന് പറയുമ്പോൾ ഇതിന് നമ്മൾ കുറെ ടൈം സ്പെന്റ് ചെയ്ത് നമ്മുടെ മൈന്റൊക്കെ ഭയങ്കര പീസാക്കി ഇരുന്നിട്ട് വേണം ഇത് നമ്മളത് ചെയ്യാൻ പക്ഷെ ഈ ഒരു ഹറി ബറിയുള്ളൊരു ലൈഫിലെനിക്കിങ്ങനെ ഇത്രത്തോളം സമയം ഇതിന് വേണ്ടീട്ട് സ്പെന്റ് ചെയ്യാൻ നമുക്ക് കിട്ടാറില്ല പിന്നെ വരക്കാൻ വരക്കാനുള്ള പ്രചോദനം എന്ന് പറയുന്ന സമയത്ത് നമുക്കീ നമ്മൾ വീണ്ടും വീണ്ടും വര നമ്മളൊരു ചിത്രം വരച്ച് നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരിൻ്റെ അടുത്ത് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് അത് വളരെ നന്നായിട്ടുണ്ട് എന്ന് കേൾക്കുമ്പം വീണ്ടും വീണ്ടും വരക്കാനുള്ള പ്രചോദനം എനിക്ക് അവരിൽ നിന്നാണ് കിട്ടുന്നത് എത്ര മനോഹരമായിട്ട് വരക്കുകയാ ചില ചിത്രങ്ങൾ ഞാനിങ്ങനെ വരച്ചതൊക്കെ ഇവരിങ്ങനെ ഫ്രെയിം ചെയ്തിടുക നമ്മുടെ വീട്ടിൻ്റെ വോളിൽ തൂക്കിയിടുന്ന സമയത്ത് അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇനിയും ഞാനത് വരച്ച് ഇങ്ങനെ എൻ്റെ ചിത്രങ്ങളവർ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് തന്നെയാണ് ഞാൻ അപ്പോൾ അങ്ങനെ അവർ എന്നെ എത്രത്തോളം അവർ പ്രചോദനം ചെയ്യുന്ന സമയത്ത് ഞനെന്ത് ചെയ്യാറുണ്ട് എൻ്റെ എത്ര വർക്കിനിടയിലും ഞാൻ ഏറെക്കുറെ ഞാൻ അതിന് വേണ്ടി സമയം സ്പെന്റ് ചെയ്യാറും വരയ്ക്കാൻ ശ്രമിക്കാറൊക്കെ ഉണ്ട് അത് എങ്ങനെ അങ്ങനെ കൊണ്ട് പോകാൻ ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിലെ മറ്റുള്ള കാര്യത്തിന് വേണ്ടി ഞാൻ പെയിൻറിംഗ് മാറ്റി വെയ്ക്കാനോ ഒന്നും ചെയ്യാറില്ല എല്ലാം രണ്ടും ഒരു എല്ലാ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും എൻ്റെ വർക്ക് ആണെങ്കിലും പഠിത്തമാണെങ്കിലും പെയിൻറിംഗ് ആണെങ്കിലും ഞാൻ എല്ലാം ഒരേ സമയം മനോഹരമായിട്ട് തന്നെ കൊണ്ട് പോകാൻ ഒരു ഒരുപാട് ശ്രമിക്കാറുണ്ട്